ഞങ്ങളുടെ പ്രദേശത്ത് സ്പോർട്സ് സെന്ററുകൾ എന്നുപറഞ്ഞാൽ ബ്രദേഴ്സ് ക്ലബ്ബ് ഉണ്ട് പിന്നെ എമിലി കൽപറ്റ എന്നു പറഞ്ഞ ക്ലബുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് ക്ലബ്ബ് ഓരോ ക്ലബ്ബുകളിൽ കളിച്ചാലാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പറ്റാൻ പറ്റുള്ളൂ ഇപ്പോൾ സ്കൂളുകളിൽ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം കാണിക്കുക ഇപ്പോൾ ഫുട്ബോൾ കളിക്കുക ഫുട്ബോൾ നല്ലരീതിയിൽ കളിക്കണമെങ്കിൽ ഒരു ഒരു ക്ലബ്ബിൽ പോയിച്ചേർന്ന് അവരുടെ പ്രാക്റ്റീസ് മൂലമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാൻ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ അങ്ങനെയാണ് നമ്മൾ ഐ എസ് എല്ലും ഇപ്പം ലോക ലോകകപ്പൊക്കെ കിട്ടണമെങ്കിൽ അതിനകത്തൊക്കെ നേടണമെങ്കിൾ നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ കളിച്ചിട്ട് നമ്മുടെ ടാലന്റ് തെളിയിക്കണം അതിന് നമ്മള് നല്ലോണം പ്രാക്റ്റീസ് ചെയ്യണം അപ്പോൾ പ്രാക്റ്റീസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ക്ലബ്ബുകളിൽ പോയിട്ട് ചേരുക അവിടെയുള്ള ഓരോ മാച്ചുകൾ ഉണ്ടാകും അതായത് ടൂർണമെൻറ് ഉണ്ടാകും ടൂർണമെന്റിനൊക്കെ പോയി പങ്കെടുക്കുക പിന്നെ ഇവറുടെ പ്രാക്റ്റീസ് ആണ് മെയിൻ ആയിട്ട് പ്രാക്റ്റീസ് കറക്ട് കിട്ടിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല പ്രാക്റ്റീസ് ചെയ്യുക പിന്നെ എന്താ വച്ചാൽ ക്ലബ്ബുകളിൽ പോയി പ്രാക്റ്റീസ് ചെയ്തുകഴിഞ്ഞാൽ എല്ലാം നമുക്ക് നേടാൻ പറ്റും ഇതാണ് മെയിൻ ആയിട്ട് വയനാട്ടിലുള്ള പറയുന്നത്